ഹാൻ്റ് പമ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നു ചോദിച്ചാൽ അത് ഒരു വ്യക്തി ആ പമ്പിലെ ഹാൻ്റിൽ പിടിച്ച് രണ്ട് മൂന്ന് വട്ടം ആട്ടണം അത് പലപ്പോഴും അങ്ങനെ കുറെ വട്ടം ചെയ്തതിന് ശേഷം മാത്രമേ അതിൽ വെള്ളം വരത്തുള്ളൂ പിന്നെ ഹാൻ്റ് പമ്പുകളിൽ വെള്ളം വേനൽക്കാലത്ത് ഉണ്ടാകുമോ അതോ അത് വരണ്ട് പോകുമോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ പറയേണ്ടത് അത് ആ ഒരു സ്ഥലത്തെ ആസ്പദമാക്കിയാണ് അതിലെ വെള്ളം വരുമോ ഇല്ലയോയെന്ന് ഇരിക്കുന്നത് പിന്നെ ഹാൻ്റ് പമ്പുകൾ വളരെ ഉപയോഗപ്രദം ഉപയോഗപ്രദമെന്ന് ചോദിച്ചാൽ ആ ഒരു കാലത്ത് അത് വളരെ ഉപയോഗപ്രദം ആയിരുന്നു അതിൽ ഒരു നീണ്ട രീതിയിലുള്ള ക്യൂ തന്നെ ഉണ്ടായിരുന്നു എന്നുവച്ച് അത്രയും ജലലഭ്യത അല്ലെങ്കിൽ അത്രയും വെള്ളത്തിനുള്ള വെള്ളത്തിനോടുള്ള ഒരു മാർഗ്ഗം ഇല്ലാതിരുന്ന ഒരു സമയത്താണ് ആളുകൾ ഈ ഹാൻ്റ് പമ്പുകൾ കൂടുതലും എന്തു പറയുക അതിൽ ഡിപ്പെൻ്റൻ്റ് ആയിരുന്നത് ഹാൻ്റ് പമ്പുകൾ അത്രയും ഉപയോഗപ്രദം ആയിരുന്നു ആ സമയത്ത് ഇന്നത്തെ പുതിയ ജനറേഷനിൽ പമ്പുകളെ വച്ചു നോക്കുമ്പോൾ അത് അതിന് അത്ര പ്രസക്തി ഇല്ല പക്ഷേ ആ ഒരു സമയത്ത് അതിൻ്റെ പ്രാധാന്യം വളരെ വലുത് തന്നെ ആയിരുന്നു ഹാൻ്റ് പമ്പുകൾ എന്നുപറയുന്നത് അത് വെള്ളമടിച്ച് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മുടെ ആവശ്യാനുസരണം അതിൽ വെള്ളം ഉണ്ടായാൽ അത് അടിച്ചാലേ വരത്തുള്ളു അല്ലാതെ വെറുതെ ടാപ്പ് തുറന്നത് മാതിരി നമുക്ക് ഇതിൽ നിന്നും ഒരിക്കലും വെള്ളം എടുക്കാൻ പറ്റില്ല അതാണ് ഹാൻ്റ് പമ്പുകളുടെ ഒരു ഒരു ഒരു ഉപയോഗം എന്നു പറയുന്നത് പിന്നെ അതിൽ ഒരു സമയത്ത് ഉണ്ടായ ക്യൂ എന്നു പറയുന്നത് വളരെ വലുത് തന്നെ ആയിരുന്നു പിന്നെ അത്യാവശ്യം നേരത്തെ വെള്ളവും നിറയുമായിരുന്നു അത്രയും പവറിൽ ആയിരുന്നു വെള്ളം ഒരു വെള്ളം വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെയാണ് ഹാൻ്റ് പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതാണ് ഹാൻ്റ് പമ്പുകളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്